ഞാൻ ചെറുപ്പം മുതലേ കണ്ടിരുന്ന ഒരു പരിപാടിയുടെ അവതാരകനാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പേജ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് താല്പര്യം ഉള്ള മേഖലയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന രീതികൾ ഞാൻ കാണാനും അതുപോലെത്തന്നെ ചെയ്ത് നോക്കാനും ഞാൻ പരിശ്രമിക്കാറുണ്ട് എനിക്ക് അവരുടെ രീതികൾ വളരെ ഇഷ്ടമാണ് ഞാനും ഒരു ആർട്ട് ആൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ പലതരത്തിലുള്ള ചെറിയ ചെറിയ കൈപൊടികൾ ചെയ്യാൻ വളരെ ഇഷ്ടമാണ് അത് കാണാനും അത് ചെയ്ത് നോക്കി അത് സക്സസ്ഫുള്ള് ആവുന്നു എന്ന് അറിയുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ്